ഇപ്പോൾ എനിക്ക് ഒത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഒരു പരി ഞാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പാർട്ണറാണ് അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഒരു ഷൂ കടയൊക്കെ തുടങ്ങിട്ടുണ്ടായിരുന്നു അതായത് നല്ല അടിപൊളി ഷൂവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു ഫുട്വെയറിൻ്റെ ഷോപ്പ് ഒക്കെ തുടങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഒപ്പം എനിക്ക് വൈഫും കുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമില്ല അപ്പോൾ ഞാന് ഇടയ്ക്ക് ഇടയ്ക്ക് ലീവ് ആകുമായിരുന്നു ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴുമില്ല എൻ്റെ കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാൻ വേണ്ടി ഒക്കെ ഞാന് ലീവ് ആകും കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ ഷെയർ ആയിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ആവിശ്യത്തിന് നമുക്ക് പോകാൻ വേണ്ടീട്ടാണ് കൂടുതലായിട്ടും നമ്മള് ഇങ്ങനത്തെ ഒരു നമ്മൾ വേറെ ഒരാളുടെ കീഴിൽ നിൽക്കാണ്ട് നമ്മുടെ സ്വന്തമായിട്ട് തുടങ്ങുന്നത് അപ്പം ഞാന് അതൊക്കെ വിചാരിച്ച് ഞാൻ പോയി അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ണർക്ക് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം എൻ്റെ കൂ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ലീവ് ആകുന്നതും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഞാൻ ഒഴിയും അല്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞോ നിങ്ങൾ എൻ്റെ ഷെയർ എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പറഞ്ഞു അപ്പം പുള്ളി എന്ത് പറഞ്ഞു എന്നാൽ നീ ഒഴിഞ്ഞോ നീ ഇടയ്ക്ക് ഇടയ്ക്ക് ലീവ് ആകുന്നത് അല്ലേന്നൊക്കെ പറഞ്ഞ് പുള്ളി ചൂടാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ ഷെയറും മേടിച്ച് ഞാൻ അങ്ങ് ഒഴിഞ്ഞു അത്ര തന്നെ അപ്പം അതിൽ കൂടുതൽ ഒന്നും എനിക്ക് അവരോട് പറയാൻ ഉണ്ടായിരുന്നില്ലലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ അത് തീർപ്പാക്കിയത് ഞാൻ ആ ജോലിയിൽ നിന്ന് രാജിവെച്ച് അവരുടെ ഇതിന്ന് ഞാൻ പോയി ഞാൻ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ ജോലി എന്താ പറയുക സ്വന്തം തൊഴിലൊക്കെ എടുത്ത് ജീവിക്കുന്നു